ആ പറ സാറേ എൻ്റെ പേര് വാസു ഞാൻ ഇവിടെ കിച്ചൺലെ സ്റ്റാഫ് ആ പറ സാറെ പറ സാറെ മനസ്സിലായി ആ ആ ആ സൂപ്പ് സൂപ്പെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എല്ലാതരം വെറൈറ്റി സൂപ്പ്കളൊണ്ട് വെജ്സൂപ്പ് ഛെ ചിക്കൻ സൂപ്പ് മട്ടൻ സൂപ്പ് ഫിഷ് സൂപ്പ് പിന്നെ ചൈനീസ്ന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ പാമ്പ് സൂപ്പ് പാമ്പ് സൂപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ മെയ്നായിട്ട് നമ്മൾ കോബ്രാ കോബ്രാ സൂപ്പാണ് മെയ്നായിട്ട് നമ്മൾ ഫോക്കസ്സ് ചെയ്യണത് ആ അല്ലല്ല നമ്മൾ പുതിയ പുതിയ പുതിയ വെറൈറ്റീസ് പുതിയ പുതിയ വെറൈറ്റീസ് നമ്മുടെ തന്നെ ഓൺ ഡിഷസ് ഉണ്ട് ഒരെണ്ണം ഉണ്ട് പിന്നെ തവ ആ അട്രാക്ഷൻ നമ്മൾ മെയിനായിട്ട് അട്രാക്ഷൻ പിടിച്ച് പറ്റാൻ ആ ആ ആ അല്ല മെയ്നായിട്ട് നമ്മൾ അട്രാക്ഷൻ പിടിച്ച് പറ്റാനായിട്ട് നമ്മൾ പുതിയ സാധനം ഇറങ്ങുന്നുണ്ട് തവള വറുത്തരച്ച വറുത്തരച്ച സൂപ്പ് പിന്നെ മത്തങ്ങാ സൂപ്പ് പിന്നെ ആൾക്കാരുടെയെനർജി നമ്മൾ നോക്കണമല്ലോ അപ്പം വിറ്റാമിൻസൊക്കെ കൂടുതലായിട്ടുള്ള സൂപ്പ്കൾ എപ്പോഴും ഫോക്കസ്സ് ചെയ്യണത് കൊണ്ട് ഏതെന്ന് വെച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ സൂപ്പിൻറ്റകത്തന്നെ നമ്മൾ ഇങ്ങനെ പ്രോട്ടീൻ പൗഡറിട്ട് കൊടുക്കും പിന്നെ പ്രോട്ടീൻ പൗഡറിൻ്റെകൂടെ തന്നെ നമ്മൾ പ്രോട്ടീൻ പൗഡറിട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ല എനർജിയാവും ആ അഹ ആ അതിനാണ് അറിയപ്പെടും അതെ അറിയപ്പെടണം അപ്പം മെയ്നായിട്ട് മെയ്നായിട്ടിങ്ങനെ എന്താ കൂടുതലും വിറ്റ് പോകണ സൂപ്പ് നമ്മൾ കൂളൊണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം അതിന് നമ്മൾ മെയ്നുദ്ധേശം ആ ഇൻഗ്രീഡിയൻ നമ്മൾ നമ്മൾ മ്മ്ഹ് മെയ്നായിട്ട് എനർജി ഈ ബൂസ്റ്റർ ചായണ്ടാ സാറ് കഴിച്ചിട്ടില്ലേ ബൂസ്റ്റർ ചായപോലെ നമ്മൾ ബൂസ്റ്റർ സൂപ്പ് ആ ബൂസ്റ്റ അതെ ഈ ബൂസ്റ്റർ സൂപ്പ് കുടിച്ച് കഴിയുമ്പോൾ തന്നെ ബൂസ്റ്റർ സൂപ്പ് കുടിച്ചാൽ ഏയ് ഇല്ല ഇല്ല നമ്മൾ ഈ ബൂസ്റ്റർ സൂപ്പ് കുടിക്കുമ്പം തന്നെ ബൂസ്റ്റർ സൂപ്പ് കുടിക്കുമ്പം തന്നെ ആൾക്കാർ ബൂസ്റ്റായിട്ട് നല്ല വേറെ വേറെ അടുത്തടുത്ത വെറൈറ്റീസ് ട്രൈ ചെയ്യാൻ തുടങ്ങും അപ്പം നമ്മൾ ഈ സ്റ്റാഫ്കളിൽ ചിലപ്പം ഇവർ കൊണ്ട് കൊടുക്കുന്നത് ഇഷ്ട്ടപ്പെടുന്നില്ലായിരിക്കും ഇവർക്കടെ നീറ്റ്നെസ്സൊന്നും പിടിക്കണില്ലായിരിക്കും അതായിരിക്കും കസ്റ്റമേഴ്സ് കുറയണത് അവർക്ക് ആ എന്തായാലും നമ്മൾ ഇങ്ങനെയാണ് ആ ആ ആ അതങ്ങനെയാണ് നമ്മൾ കൂടുതൽ നമ്മൾ കൂടുതലും വെറൈറ്റീസ് ട്രൈ ചെയ്യണുണ്ട് അപ്പം പുറത്തുന്നുള്ളതല്ല നമ്മൾ നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ ഓൺ നമ്മൾ ഓൺ സാധനങ്ങളാണ് നമ്മൾ ഇങ്ങനെ മെയ്നായിട്ട് ഫോക്കസ്സ് ചെയ്യണത് ആ അത് അവർക്ക് വേണ്ട സൂപ്പ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കും അപ്പം അവർക്ക് എന്ത് സൂപ്പാണ് വേണ്ടേ അവർക്ക് വേണ്ട സാധനം നമ്മൾ ഉണ്ടാക്കി കൊടുക്കും ആ ഒരു സെറ്റപ്പ് നമ്മൾ സെറ്റായി വരുന്നുണ്ട് എന്തോ ഏയ് ഇല്ലില്ലില്ലില്ല അത് നമ്മൾ അങ്ങനെ ചെയ്യില്ലാലോ നമ്മൾ എല്ലാം ലീഗലി ചെയ്യുള്ളു ലീഗൽ നമ്മൾ എല്ലാം നമ്മൾ വേണ്ട രീതിയിലെ ചെയ്യൂ ആളങ്ങനെ ഷെഫെന്നൊ ഷെഫെന്ന രീതിയിൽ നമ്മൾ അവിടെ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും ഇതിൽ ബാക്കിയുള്ള സ്റ്റാഫ്കൾ എന്തേലും കിണാപ്പുകളൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ അത് നമ്മടലെവക്കാൻ പറ്റില്ലല്ലോ ഏത് അതവരുടെ തെറ്റ് അവരുടെ തെറ്റായിട്ട് എടുക്കണമല്ലോ സാറിങ്ങനെ നമ്മളെ ഷെഫെന്നുള്ള രീതിയിൽ സാറെൻറ്റട്ത്തിങ്ങനെ പറയില്ലല്ലോ സാർന് മനസ്സിലാകുന്നുണ്ട് ഷെഫെന്നുള്ള രീതിയിൽ എൻ്റെ ഭാഗം ക്ലിയറാണ് പിന്നെ ബാക്കിയുള്ള സ്റ്റാഫ്കളുടെ കാര്യം വെച്ചിട്ട് സാറെന്നോടിങ്ങനെ പെരുമാറുന്നത് അത്ര ശരിയല്ലെന്ന് ഞാൻ പറയുന്നു ആ ഓക്കെ ഓക്കെ സാർ ഡിസിഷനെടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്നെയങ്ങ് പുറത്താക്കുമെന്നാണോ ഇവിടെ ഇവിടെ ഈ ഒരു ഹോട്ടൽ മാത്രമല്ലല്ലോ പുറത്തും ഹോട്ടലുകൾ ഉണ്ടല്ലോ ആ ആ ഞാൻ ചെയ്യുന്നതിന് എനിക്ക് വേണ്ടത്ര പാരിതോഷികം കിട്ടുന്നില്ലെങ്കിൽ ഞാൻ പുറത്തെ ഹോട്ടല്കൾലേക്ക് നോക്കണോല്ലോ സാറെന്നെയങ്ങ് സ്ഥലം മാറ്റും എന്നൊന്നുമല്ലല്ലോ അല്ലേ ഉദ്ദേശിച്ചത് ആ ശരി ശരി ശരി ശരി സാർ ഓക്കെ